ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നത് പൈസയില്ലായ്മ തന്നെയാണ് ഇപ്പോൾ പഠിക്കാൻ തന്നെ ആണെങ്കിലും ഒരു സ്കൂളിൽ സീറ്റ് വാങ്ങണം എന്ന് തന്നെയാണെങ്കിലും അതിനൊന്നും പൈസ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പഠനം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ വെല്ലുവിളിയാണ് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കോളേജിലേക്ക് കയറാൻ നിൽക്കുന്ന ആ കാലഘട്ടം എനിക്കൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു എന്റെ അടുത്തുള്ള രണ്ടു കോളേജിൽ മാത്രമേ എനിക്ക് സീറ്റ് എനിക്ക് സീറ്റ് പോകാൻ പറ്റുള്ളൂ പുറത്തൊന്നും വിട്ട് പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അടുത്തുള്ള സ്കൂളിൽ കിട്ടണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു എനിക്കുള്ളത് അടിനായി ഞാൻ കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ച് പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് സീറ്റുകൾ പരിമിതമായിരുന്നു അപ്പോൾ ആദ്യത്തെ അലോട്ട്മെന്റിൽ കിട്ടിയില്ല രണ്ടാമത്തെ അലോട്ട്മെന്റിൽ അങ്ങനെ ഒരുപാട് കാത്തിരുന്നിട്ടാണ് എനിക്ക് കോളേജിൽ കിട്ടിയത് ഒരു സീറ്റ് കിട്ടിയത് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച് വേറൊരു കോളേജിൽ പൈസ കൊടുത്ത് കയറണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒരു കോളേജിൽ ഒരു സീറ്റ് കിട്ടിയത് അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് പഠിച്ചത് കൊണ്ടാണ് ഇരുന്ന് കഴിവ് കഴിവിന്റെ പരമാവധി ഇരുന്ന് പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു സീറ്റ് കോളേജിൽ കിട്ടിയത് അത് തന്നെ ഒരു അടിപൊളി കോളേജിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്